ഞാൻ ഇതുവരെ ഒരു ഉപകരണവും സംഗീതത്തെക്കുറിച്ച് സംഗീത ഉപകരണവും പഠിച്ചിട്ടില്ല പഠിക്കാൻ ആഗ്രഹമുള്ളത് ഗിറ്റാർ ആണ്

ഗിറ്റാർ പഠിക്കണമെന്ന് എനിക്ക് വലിയ ആഗ്രഹമുണ്ട് കാരണം ഞാൻ ഗിറ്റാർ വായിക്കുന്ന ഒരുപാട് വീഡിയോകൾ കണ്ടിട്ടുണ്ട് അത് തന്നെയാണ് അത് കേട്ടിട്ടുണ്ടായൊരു ഒരു ആഗ്രഹമാണ് ഗിറ്റാർ പഠിക്കണമെന്നുള്ളത് അതിനെ തുടർന്ന് തന്നെ എൻ്റെ ഏറ്റവും തീവ്രമായ ആഗ്രഹമാണ് ഗിറ്റാർ പഠിക്കുക എന്നത് അതിനോട് വളരെ അധികം താല്പര്യം എനിക്കുണ്ട്